ഞങ്ങളുടെ സ്ഥലത്ത് ഇവിടൊരു ക്ലബുണ്ട് അപ്പോൾ ക്ലബിൻ്റെ വാർഷികം ആ പരിപാടികളിലൊക്കെ നമ്മുടെ ആളുകളും നമുക്ക് നമ്മുടെ വിരുന്നുകാര് ബന്ധുക്കള് പിന്നെ ചുറ്റുവട്ടത്തിലെ ആളുകള് അങ്ങനെ എല്ലാവരും വരുന്നൊരു പരിപാടിയാണ് അതായിരിക്കും ഏറ്റവും മെമ്മറബിളായിട്ടുള്ള പരിപാടി അപ്പോൾ എല്ലാവരെയും നമുക്ക് ബന്ധുക്കാരേയും അവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അന്നത്തെ ദിവസം മൊത്തം അടിപൊളി ആയിരിക്കും പാട്ടും ഡാൻസും പിന്നെ ഫുഡും അങ്ങനെയെല്ലാം ആ ദിവസം മൊത്തം എൻ്റർടൈൻമെന്റായിരിക്കും നമുക്ക് അതായിരിക്കും നമ്മുടെ അവിടെ ഒരു ആളുകളെല്ലാം കൂടി ഒത്തു ചേരുന്നൊരു വിരുന്നെന്ന് പറയുന്നത് പിന്നെ കൂടുതല് കുറേ ആളുകള് ഇവിടെ ഇല്ലാത്ത ആളുകളുണ്ട് നമ്മുടെ സ്ഥലത്തല്ലാണ്ട് പുറത്തുള്ള ആളുകളുണ്ട് അവരുടെ അവരും ഈയൊരു ദിവസം ഇവിടെ ഒത്തു ചേരാറുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ആള് കാണാത്ത ആളുകളെയും നമുക്ക് കാണാൻ കഴിയും ആ ദിവസമാണ് അപ്പോൾ അതൊരു ആ ദിവസമായിരിക്കും കുറച്ച് എൻ്റർടൈൻമെന്റൊക്കെ ഉള്ള ദിവസം